അതായത് നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ അത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആണെങ്കിലും ഇപ്പോൾ ഒരു ഫുഡുണ്ടാക്കുമ്പം നമ്മളിപ്പം ഒരു ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ അരകല്ലേലിട്ട് അരച്ച് വേണമായിരുന്നു ഉണ്ടാക്കാൻ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ മിക്സിക്കാത്തിട്ട് അടച്ച് ഇൻസ്റ്റൻറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ പണ്ട്കാലത്ത് നമ്മൾ ഉണ്ടാക്കികൊണ്ടിരുന്നതിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ തന്നെ ഒരു വ്യായാമകുറവും ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പണ്ടത്തെ പഴയ തലമുറയൊക്കെ ഒത്തിരി അധ്വാനിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ അവർ വേസ്റ്റ് ആകാതെ ഇരിക്കാൻ നോക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നുവല്ല ഇപ്പോൾ നമുക്കൊരു ഫുഡ് വേണമെന്ന് തോന്നിയാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യും നമ്മൾ കുക്ക് ചെയ്യത്തില്ല ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വേറൊരാളുണ്ടാക്കിയ ഫുഡ് അതിപ്പോൾ എത്ര നാൾ ഇരുന്നതാണ് അല്ലെങ്കിൽ എന്തൊക്കെ കൂട്ടി ചേർത്തതാണ് എന്ന് ഒന്നും നോക്കാതെ നമ്മൾ അത് വാങ്ങിച്ച് കഴിക്കുന്നു ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അത് നമ്മുടെ ഒരു കുക്കിങ്ങ് സ്കിൽസ് കൂട്ടും അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പക്ഷേന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ ഹെൽപോടുകൂടി നമ്മളിപ്പം വെളീന്ന് മറ്റൊരാളുണ്ടാക്കുന്ന ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ട് വാതിൽക്കൽ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്ന നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്